കൃഷി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് അതിൽ ഏറ്റവും സന്തോഷം തരുന്നത് അതിൽ സാധങ്ങൾ ഉണ്ടായി കാണുമ്പോഴാണ് അതായത് ഇപ്പം ഒരു വിത്ത് നട്ട് അതിന് വെള്ളം നനച്ച് അത് പൂവായി കായായി വരുമ്പോഴുള്ള ആ ഒരു സന്തോഷം വളരെ അധികമാണ് പിന്നെ അത് ഉണ്ടായി നിൽക്കുമ്പോഴുള്ള ഭംഗി അതും കാണാൻ രസമാണ് അതിൽ ഉപരി വിഷാംശമില്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്നു എന്നുള്ളതും വളരെ സന്തോഷമാണ് പിന്നെ കൃഷി ഒരു തൊഴിലാക്കിയിട്ട് കണ്ടിന്യു ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതായത് അതിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല